ഞാൻ മലയാളം പഠിച്ചത് നമ്മുടെ മാതൃഭാഷയാണല്ലോ സംസാരത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിച്ചു എന്നാലേറ്റവും കൂടുതൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആശാൻ കളരി ഉണ്ടായിരുന്നു കളരിയിൽ ആശാന് നിലത്തെഴുത്ത് എന്നു പറയും അക്ഷരങ്ങൾ ആയും ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങൾ ക ഖ ങ തുടങ്ങി ഉള്ള അക്ഷരങ്ങൾ ഒക്കെ നിലത്തെഴുത്ത് എന്നു പറയും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മളീ അന്നേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ അംഗൻവാടിയോ നേഴ്സറി സ്കൂളുകളോ ഒന്നുമില്ല ആ സമയത്ത് നിലത്തെഴുത്തിനു വേണ്ടി ആശാൻ കളരിയിലേക്കാണ് കൊണ്ടു പോകുന്നത് ആശാൻ തൻ്റെ മടിയിൽ നമ്മളെ പിടിച്ചിരുത്തിയിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ചരിയെടുത്തിട്ട് ആ അരിയിൽ നമ്മളെക്കൊണ്ട് ആദ്യാക്ഷരം കുറിപ്പിക്കും ഇന്ന് ഒത്തിരി സ്ഥലങ്ങളിൽ അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് അതിനു ശേഷം നമ്മളെ നമ്മുടെ വിരൽ ആശാൻ കയ്യിൽ പിടിച്ചിട്ട് നല്ല മണൽ നിരത്തിയിട്ട് നിലത്ത് ആ മണലിനകത്ത് അക്ഷരങ്ങൾ എഴുതിപ്പിക്കുമായിരുന്നു അപ്പം നമ്മുടെ നന്നായിട്ട് കൈ വിരലിൽ പിടിച്ച് അമർത്തിത്തന്നെ നിലത്ത് എഴുതുമ്പോൾ കൈയ്യുടെ ചൂണ്ട് വിരലിന് വലതു കയ്യുടെ ചൂണ്ട് വിരലിനെ ലേശം വേദനയൊക്കെ എടുക്കുമെങ്കിൽ പോലും നമ്മുടെ മനസ്സിലേക്ക് ആ അക്ഷരങ്ങൾ നന്നായിട്ട് പതിയും അപ്പം ആ ചെറുപ്പത്തിലേ ഞാനൊക്കെ ഈ കരഞ്ഞത് ഒക്കെ ഓര്ക്കുന്നുണ്ട് കയ്യൊക്കെ വേദനിച്ചിട്ട് ആശാന് നല്ല നുള്ളൊക്കെ വെച്ചു തരും എങ്കിൽ ഇപ്പോഴൊരു നമുക്കത് വളരെ പ്രയോജനകരമായിരുന്നു ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷയാണെങ്കിൽ പോലും നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്ത ഒത്തിരി കുട്ടികളുണ്ട് അത് അങ്ങനെ ആശാൻ കളരിയിലൂടെ പഠിച്ചതും പിന്നീടെൻ്റെ സ്കൂളുകളിൽ എൽ പി ക്ലാസ് തുടങ്ങി യു പിയിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന ചെറിയ കാലഘട്ടം പ്രൈമറി സ്കൂളിൻ്റെ കാലഘട്ടങ്ങളിൽ നന്നായിട്ട് മലയാള ഭാഷയ്ക്ക് മലയാള അദ്ധ്യാപകർ പ്ര ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു അപ്പം അതുമൂലം നമുക്ക് നന്നായിട്ട് മലയാളം പഠിക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നു മലയാളം പഠിച്ചതു കൊണ്ടുള്ള നാ ഏറ്റവും വലിയ ഗുണം എന്നു പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഒരു മറയില്ലാതെ പറഞ്ഞു കൊടുക്കുന്നതിന് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ആശയ വിനിമയത്തിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ മാതൃഭാഷയാണല്ലോ ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ മാതൃഭാഷയായ മലയാളം മലയാള ഭാഷ എൻ്റെ വീടുകളിൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് അതു പോലെ സമൂഹത്തിൽ ഒക്കെ നമ്മളേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ എന്നു പറയുന്നത് മലയാളം തന്നെയാണ് അപ്പം മലയാളം നമ്മളിനി ഏതൊക്കെ ഭാഷകളും പഠിച്ചെന്നു പറഞ്ഞാലും മലയാളം ഭാഷയാണ് നമ്മുടെ സാന്ദർഭികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ നാവിൻ തുമ്പിലേക്കു വരുന്നത് നന്നായിട്ട് സംസാരിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചത് ഈ മലയാള ഭാഷ പഠിച്ചതു കൊണ്ടു മാത്രമാണ് നന്നായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനും ആശയവിനിമയങ്ങൾ നടത്തുന്നതിനും നമുക്ക് ഏറ്റവും കൂടുതൽ സഹായകരം തന്നെയാണ് മലയാളം ഭാഷ അതുപോലെ തന്നെ നമുക്ക് പുസ്തകങ്ങൾ വായിക്കുന്നതിന് ലോക ചരിത്രങ്ങൾ ഒക്കെ വായിച്ചു മനസ്സിലാക്കുന്നതിന് കൂടുതൽ ചരിത്രങ്ങൾ പുസ്തകങ്ങളിലൂടെ പത്രങ്ങളിലൂടെ ഒക്കെ മനസ്സിലാക്കുന്നത് നമുക്കേറെ സഹായകം ആയത് മലയാള ഭാഷ ഞാനേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷയും മലയാളം തന്നെയാണ് മറ്റു ഭാഷകളേക്കാൾ ഉപരി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ഇംഗ്ലീഷും ഹിന്ദിയുമൊക്കെ ചില അനിവാര്യ ഘട്ടങ്ങളിൽ നമുക്കാവശ്യമായിട്ട് വരാം എന്നാൽപ്പോലും അവയെ നമ്മൾ തള്ളിക്കളയുന്നതല്ല അതിനേക്കാളൊക്കെ ഉപരി മലയാള ഭാഷയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത് അതു നമ്മൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാനൊക്കെ എഴുതിക്കൊണ്ടിരുന്ന പല അക്ഷരങ്ങൾക്കും ഇന്ന് ഇങ്ങ് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചില അക്ഷരങ്ങള്ക്കൊന്നും പ്രസക്തങ്ങളല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് കൂട്ടക്ഷരങ്ങൾ അതുപോലെ ചില്ലക്ഷരങ്ങൾ അതൊക്കെ ഈ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വന്നപ്പോഴത്തേക്കും അവക്കൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് മാറ്റങ്ങളൊക്കെ നല്ലതു തന്നെയാണ് പക്ഷെ നന്നായിട്ട് നമുക്ക് മനസ്സിൽ പതിഞ്ഞ മാതൃഭാഷ എന്നു പറയുന്നത് മലയാളമെന്നു കേട്ടാൽ ജ്വലിക്കണം ഞരമ്പുകളിൽ ചോരയെന്ന് കവി പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അപ്പം അതുപോലെ നമ്മുടെ മനസ്സുകളിൽ ഏറെ സന്തോഷവും സ്നേഹവും വാത്സല്യവും മാധുര്യവും കരുതലും ആവേശവും ഒക്കെ പകരുന്ന ഒരു ഭാഷയാണ് മലയാളം അപ്പം ഈ പലപ്പോഴും നമ്മൾ മറ്റ് ഇപ്പം ഹിന്ദി സംസാരിക്കുന്നവരോട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരോടും ഒക്കെയാണെങ്കിൽ പോലും നമ്മളവരോട് സംസാരിച്ചാൽ പോലും ഇടക്കൊക്കെ നമ്മുടെ മലയാളം ഭാഷകൾ തന്നെ നമുക്ക് പുറത്തു വരും അപ്പം മലയാള ഭാഷ ഇന്നിപ്പം മറ്റ് ഈ പ്രദേശങ്ങളിലൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒത്തിരി ജോലിക്കാർ അഗതി തൊഴിലാളികളൊക്കെ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട് അവരൊക്കെ ഈ മലയാള ഭാഷയുടെ മനോഹാരിത സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഇതു പഠിക്കാൻ പൊതുവെ എല്ലാവരും പറയുന്നത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് മലയാളം എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പഠിച്ചെടുക്കുന്നതിനേക്കാളൊക്കെ ബുദ്ധിമുട്ടുള്ള ഭാഷയാണ് മലയാളമെന്നാണ് മറ്റുള്ളവരൊക്കെ പറയുന്നത് എന്നാലും മലയാളം മലയാളിയെ സംബന്ധിച്ച് അവൻ്റെ മാതൃഭാഷയാണ് ആ ഭാഷയോടൊന്നും ഒരു സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ ഒരു വികാരം ആണത് അതു മനസ്സിലുണ്ടാകും താങ്ക് യൂ